പ്രേക്ഷകരിൽ ഒരുപാട് സന്തോഷവും എഞ്ചോയ്മെൻ്റും ഉണ്ടാക്കാനായിട്ട് ഡാൻസിങ്ങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡാൻസ് ചെയ്യുന്ന വഴി നമ്മളുടെ ഒരു മൂഡേ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ നമ്മളൊരു വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നല്ല ഹാപ്പിയായിട്ട് ഇരിക്കാനായിട്ട് ഡാൻസിങ്ങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എന്താ പറയുക എല്ലാവരും നല്ല എഞ്ചോയ് ചെയ്താണ് നമ്മളുടെ ആ ഒരു ഒരിതെ മാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയർ അതിപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വൈബായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡാൻസിങ്ങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല വൈബായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകാനായിട്ടൊരു ഒരു ഇതാണ് ഡാൻസിങ്ങ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഡാൻസിങ്ങ് കാണുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ വികാരം ഉണർത്താൻ എന്നു വെച്ചാൽ വികാരം അതായത് നമ്മൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഡാൻസിങ്ങ് വഴി ഇപ്പോൾ കാണുകയാണെങ്കിലും നമുക്കത് ഒരുപാട് എഞ്ചോയ് ചെയ്തു കാണാനായിട്ടുള്ള ഒരു ഇതുണ്ട് ഇപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്കത് അത്രയും അതിനേക്കാളും ഒരുപാട് എഞ്ചോയ് ചെയ്ത് ഡാൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വളരെ വളരെ നമ്മളുടെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമുക്ക് എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതിപ്പോൾ ഡാൻസ് കളിക്കണം എന്നൊന്നുമില്ല ഡാൻസിനെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഡാൻസ് കളിക്കണമെന്നൊന്നുമില്ല ഡാൻസിങ്ങ് കാണുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു കാര്യമാണ് ഡാൻസിങ്ങെന്നുള്ളത് പിന്നെയെന്താ നമുക്കെല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാനും ഏത് ഏയ്ജ് ലിമിറ്റിലുള്ളവർക്ക് ആണെങ്കിലും ഒരേപോലെ എഞ്ചോയ് ചെയ്യാൻ പറ്റണ കാര്യമാണ് ഡാൻസിങ്ങെന്നുള്ളതും പിന്നെ സിംഗിങ്ങൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഏത് ഡാൻസ് ചെയ്യുന്നതിനും ഏയ്ജ് ലിമിറ്റൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഡാൻസ് ചെയ്യാം എഞ്ചോയ് ചെയ്യാം അങ്ങനത്തെയൊക്കെ ഒരു കാര്യമാണ് അതിനൊന്നും ഏയ്ജ് ലിമിറ്റില്ല ആർക്കു വേണമെങ്കിലും ഡാൻസ് ചെയ്യാം അതുകൊണ്ടുതന്നെ അത് എല്ലാവരേയും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഡാൻസിങ്ങെന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളുമാണ് പിന്നെ ഡാൻസ് കാണുന്നതും ഡാൻസ് കളിക്കണതും ഒക്കെ നമുക്കൊക്കെ ആണെങ്കിലും ഒരു മനസ്സിനൊക്കെയൊന്ന് ഒന്ന് കൂളാക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമക്കൊരു റിലാക്സേഷനാണ് അതൊക്കെ പിന്നെന്താ നമുക്ക് അപ്പോൾ അത് നമ്മൾക്ക് അത്യാവശ്യം നല്ല ഹെൽത്തിയായിട്ടൊക്കെ ഇരിക്കാനൊക്കെയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്നു തോന്നുന്നു എക്സർസൈസൊക്കെ ചെയ്യുന്നപോലെയൊക്കെ തന്നെ ആണ് ഡാൻസിങ്ങും അത്യാവശ്യം നമ്മളുടെ ബോഡിക്ക് ബോഡിക്കൊക്കെ നല്ലൊരു എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടണ എഞ്ചോയ് ചെയ്യുന്നൊരു കാര്യമാണ് ഡാൻസിങ്ങ് പിന്നെയെന്താ ഏത് ഏയ്ജ് ലിമിറ്റിലുള്ളവർക്ക് ആണെങ്കിലും ഇഷ്ടപ്പെടുകയും ഒരുപോലെ ഒരുപോലെ ആസ്വദിക്കാനൊക്കെ പറ്റണ കാര്യമാണ് ഡാൻസിങ്ങെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നതും ഒക്കെയാണ് ഒട്ടും ബോറിങ്ങല്ലാത്തതും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണിത്